പാലക്കാട് ജില്ലയിലെ പ്രാദേശിക സംരക്ഷണ അല്ലെങ്കിൽ പരിസ്ഥിതി സംരംഭ സംരഭങ്ങൾ എന്ന് പറയാൻ ഒരുപാടുണ്ട് ചൂളന്നൂർ മയിൽ പക് മയിൽ സങ്കേതം പിന്നെ മലമ്പുഴ ഡാം പോത്തുണ്ടി ഡാം അതുപോലെ തന്നെ ധോണി കവ സൈലന്റ് വാലി അങ്ങനെ ഒരുപാട് പരിസ്ഥിതി സംരംഭങ്ങൾ ഒരുപാട് ഉണ്ട് തീർച്ചയായും ഈ സംരംഭങ്ങളൊക്കെ തീർച്ചയായും സമൂഹത്തെ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയുടെ വളർച്ചക്കും വികസനത്തിനും സഹായിക്കുന്നു ഈ സംരംഭങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് കാരണം പരിസ്ഥിതി സംരംഭ സ്ഥലമാണ് അത് സംരക്ഷിക്കുക തന്നെ വേണം അത് പൊതു നമ്മുടെ ജനങ്ങളിൽ നിന്നും അത് സംരക്ഷിക്കണം കാരണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൊല്ലംകോട് ഗ്രാമം ഒരു ടൂറിസ്റ്റ് ഗ്രാമമായി മാറുകയാണ് അപ്പോൾ ഒരുപാട് സഞ്ചാരികളവിടെ അവിടത്തോട്ട് എത്തുന്നുണ്ട് പക്ഷെ അവരൊക്കെ ആ ഒരു ഗ്രാമത്തെ വന്ന് പ്ലാസ്റ്റിക്കും മറ്റും ഉപയോഗിച്ച് ആ ഒരു ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കുകയാണ് അപ്പോൾ നമ്മൾ സമൂഹത്തിൽ അല്ലെങ്കിൽ ആളുകളിൽ നിന്നും നമ്മൾ നമ്മുടെ പരിസ്ഥിതി സംരംഭങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് അതിനുള്ള മാർഗ്ഗങ്ങളും പുതിയ പുതിയ രീതികളും കണ്ടത്തേണ്ടതായി ഇരിക്കുന്നുണ്ട് ടൂറിസ്റ്റ് സഞ്ചാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് എല്ലാ പരിസ്ഥിതി സംരംഭങ്ങളും അപ്പോൾ അതിൻ്റെതായ രീതിയിൽ പ്ലാസ്റ്റിക്കും മറ്റേതിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടും ആ ഒരു സംരംഭത്തെ അതേ പോലെ നിലനിർത്താൻ സാധിക്കണം അതേപോലെ സീതാർക്കുണ്ട് കൊല്ലംകോട് തന്നെ ഒരുപാട് സ്ഥലങ്ങള് ഉണ്ട് ഒരുപാട് ഹരിതാഭകരമായ ഒരു ഗ്രാമമാണ് കൊല്ലംകോട് പിന്നെ വിജയം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പാലക്കാടിൻ്റെ തന്നെ ഒരു പ്രശസ്തി അല്ലെങ്കിൽ പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു സ്ഥലങ്ങളൊക്കെയാണ് സൈലന്റ് വാലി ധോണി പ്രശസ്തമായ സ്ഥലങ്ങളാണ് ഒരുപാട് ആളുകൾ ഒരുപാട് സഞ്ചാരികൾ മറ്റ് സ്ഥലങ്ങളിൽ ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കാണാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ പാലക്കാടിൻ്റെ ഒരു ഹൃദയം എന്നു വേണമെങ്കിൽത്തന്നെ ഇവയൊക്കെ പറയാം മലമ്പുഴ ഡാമൊക്കെ അത്രയും പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരുപാട് സംരക്ഷിക്കപ്പെട്ട ഒരുപാട് സസ്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരുപാട് സൈലന്റ് വാലിയിലായിക്കോട്ടെ ഒരുപാട് ജീവികളെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ പരിസ്ഥിതി സംരക്ഷിക്കുന്ന രീതിയിൽ ഞാൻ ചെടികളൊക്കെ നാടാറുണ്ട് പണ്ട് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചെടികളൊക്കെ വീട്ടിൽ വന്ന് നട്ട് പിന്നീടതിന് വെള്ളം ഒഴിച്ചും മറ്റും നന്നായി പരിപാലിക്കുന്നുണ്ട് വീട്ടിന് പുറകു വശത്തായിട്ട് അത്യാവശ്യം മരങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു വിധം കുഴപ്പമില്ലാണ്ട് ഏകദേശം ചെയ്യാറുണ്ട് പിന്നെ ഇവിടെ എന്തെങ്കിലും സ്കൂളുകളിൽ ഞാൻ പണ്ട് പഠിച്ചിരുന്നു സ്കൂളുകളിൽ പിറന്നാളിന് ഞാൻ ഒരു തൈ ആയിരുന്നു ഞാൻ സ്കൂളിലോട്ട് സമ്മാനമായിട്ട് കൊടുക്കുക മിട്ടായി കൊടുക്കുന്നതിന് പകരം ഒരു തൈ സ്കൂളിലോട്ട് സംഭാവന എന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരുന്നത്